ഹലോ ഞങ്ങളുടെ ലാൻലൈൻൻ്റെ ലൈൻ ഇവിടെ ലൈൻ ഇവിടെ കട്ട് ആയി കിടക്കുകയാണല്ലോ അത് കാരണം ഞങ്ങൾക്ക് കോള്കൾ ഒന്നും വിളിക്കാനും വൈഫൈ ഇൻ്റെർനെറ്റ് കിട്ടുന്നതും ഇല്ല അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് വന്ന് ശരിയാക്കിത്തന്നാൽ കൊള്ളാമായിരുന്നു അത് എന്താ ഇങ്ങനെ കേട് വരുന്നത് കറക്റ്റ് ആയിട്ട് അതിൻ്റെ ലൈൻ നല്ല രീതിയിൽ വയറിങ് ഇടാത്തത് കൊണ്ട് അല്ലേ ഇങ്ങനെ ഇത് വരുന്നത് അപ്പോൾ ഇനി അത് നന്നാക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്ത് തരാനായിട്ട് ഇനിയും കേടാകാത്ത രീതിയിൽ അതൊന്ന് സെറ്റ് ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ സേവനത്തെ അത് ബാധിക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഡിസ്ക്കണെക്ട് ആക്കാനായിട്ടുള്ള തീരുമാനം എടുക്കാൻ പോവുകയാ